ഈ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനം ആണ് പാചകം ചെയ്യുന്ന നേരത്ത് നമ്മള് ഈ ഗ്യാസ് അടുപ്പ് അതിൻ്റെ ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മള് പാചകം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഗ്യാസ് എന്ന് പറയുന്നത് അത് പല സമയത്തും ഓരോരോ രീതിയിലക്കെയായിരിക്കും അയിൻ്റെ പൊട്ടിത്തെറികള് അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മള് ഈ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഈ ഷാളക്കെ ഇട്ടിട്ട് പോയിട്ട് പാചകം ചെയ്യുമ്പം അതിൻ്റെ കൂടെ കത്തി മുകളിലേക്ക് ഇതാവാനും പിന്നെ നമ്മള് എന്തേലും അശ്രദ്ധ കാരണം ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാവാനും അങ്ങനെ പലതരത്തിലുള്ള കേസ് കെട്ടുകളും ഉണ്ട് നമ്മള് ഈ ഗ്യാസിൽ നിന്ന് അതിൻ്റെ സ്വിച്ച് പിന്നെ അതിൻ്റെ കണക്റ്റിംഗ് അതെല്ലാം പെർഫെക്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് പലതരത്തിലുള്ള ദോഷങ്ങള് അങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പൊട്ടി തെറിക്കലും പിന്നെ തീപിടിത്തവും വീടിന് തീപിടിക്കും അങ്ങനെ പലതരത്തിലുള്ള കേസ് കെട്ടുകളും ഉണ്ടാവലുണ്ട് അതുകൊണ്ട് നമ്മള് ഗ്യാസ് ഉപയോഗിക്കുമ്പം വളരെ ഇതാക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവും പലരുടെയും ഡ്രസ്സില് സൈഡ് കൂടെ കത്തി കയറി അങ്ങനെ ഭയങ്കര അപകടം ഉണ്ടായിട്ടും ഉണ്ട്